നമ്മുടെ സമീപത്ത് അതായത് കാസർഗോഡിൽ അങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളിക്കര ബീച്ചും ബേക്കൽ ഫോർട്ടും അതുപോലെ തന്നെ പിന്നെ അനന്തപുരി ടെമ്പിളുമാണ് അനന്തപുരി അമ്പലം അത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ആ അമ്പലമെന്ന് പറഞ്ഞാൽ ഒരു കുളത്തിനാൽ ചുറ്റപ്പെട്ട് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ നടുക്കായിട്ടാണ് അമ്പലം അപ്പോൾ അമ്പലത്തിൽ പോകുവാണെങ്കിൽ തന്നെ വളരെ മനസികമായിട്ടും നല്ല സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു സ്ഥലമാണ് വളരെ നിശബ്ദത മനസിനൊരു ഉത്തേജിപ്പിക്കുന്നൊരു സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അമ്പലമാണത് അവിടെ എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൽ നമുക്ക് പണ്ട് നമ്മുടെ എൻ്റെ അജ്ജനും അജ്ജിയൊക്കെ അവർ പറയുന്നൊരു കഥയുണ്ട് കഥ എന്ത് എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൽ പണ്ട് പൂജാരി പിന്നെ വിഷ്ണു ഭഗവാനെ പൂജ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ കുട്ടി അവിടെ നടയിൻ്റെ നടുക്കായിട്ട് നിൽക്കുന്നുണ്ടായിന് പോലും അപ്പം ഈ പൂജാരി പൂജ ചെയ്യാനുള്ള സാധങ്ങളും എടുത്തുകൊണ്ട് അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോളത്തേക്ക് ഈ കുട്ടി നടുക്ക് നിൽക്കുന്ന കണ്ട് ദേഷ്യം പിടിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തള്ളി മാറ്റി ഇത് എന്തിനാ ഇവിടെ നടുക്ക് ഇങ്ങനെ നിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പൂജ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പൂജ ചെയ്ത് കഴിഞ്ഞപ്പം ആ പിന്നെ രാത്രിയിൽ സ്വപ്നത്തിലെങ്ങാണ്ട് വന്ന് ഒരു ഇത് പറഞ്ഞു പോലും ശ്രീകൃഷ്ണൻ അതായത് വിഷ്ണു ഭഗവാൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ചൊടിച്ച് പോയി അനന്തപുരിയിൽ നിന്ന് വിഷ്ണു ഭഗവാൻ പോയിട്ടാണ് നമ്മുടെ ശ്രീ അനന്ത തിരുവനന്തപുരത്ത് അനന്തപത്മനാഭൻ സ്വാമിക്ഷേത്രത്തിലിരിക്കുന്ന എന്നാണ് ഇവിടെ പറയുന്നത് അത് ഇങ്ങനെ പണ്ട് കാലത്ത് എൻ്റെ അമ്മേരെ അമ്മയൊക്കെ പറഞ്ഞു കേട്ട കഥയാണ് അപ്പോൾ പൂജാരി ഈ വിഷ്ണു ഭഗവാൻ ചെറിയ കുട്ടിയായി വന്ന് നിൽക്കുന്ന നിന്നത് കു വിഷ്ണുവാണ് പോലും അപ്പം ആ കുട്ടിനെ തള്ളിയത് കൊണ്ടാണ് അവിടെയൊരു തുരങ്കമുണ്ട് ഒരു ഗുഹ ആ ഗുഹയിലൂടെ ഇറങ്ങി പോയാൽ തിരുവനന്തപുരത്ത് എത്താം അനന്തപത്മനാഭ സ്വാമിക്ഷേത്രത്തിലെത്താം എന്നുള്ളതും പറയുന്നുണ്ട് അത് എത്രമാത്രം സത്യം എന്ത് എന്ന് അറിയില്ല പക്ഷേ നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസം അതുതന്നെയല്ലേ എല്ലാം പിന്നെ എല്ലാം നമുക്ക് ഇപ്പം വസ്തുതകളും മറ്റും ഇതൊക്കെ വെച്ച് പിന്നെ ഷാ സൈൻറ്റിസ്റ്റ് ശ ശാസ്ത്രം വെച്ചൊന്നും നമുക്ക് ഇതാക്കി തരാൻ തെളിയിക്കാൻ പറ്റില്ലലോ കുറെയൊക്കെ നമ്മുടെ വിശ്വാസം തന്നെ അപ്പം ആ അമ്പലത്തിൽ കുട്ടിയോള് ലീവ് കുട്ടികൾക്ക് ലീവ് കിട്ടുമ്പം അങ്ങനെയൊക്കെ അവിടെ പോവാനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബേക്കൽ ബീച്ചിലായാലും അവിടെ പിന്നെ കുതിരസവാരി ഒട്ടക സവാരിയുണ്ട് കുതിര സവാരിയുണ്ട് പിന്നെ കുറെ അക്വാറിയങ്ങളും പിന്നെ കുട്ടികൾക്ക് എൻറ്റെർടൈൻ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ഒക്കെയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ബീച്ചിൽ പോകാനും അവിടെ ഇരുന്ന് അതൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണ് അതുകൊണ്ട് അവിടെയും പോകാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ടില് പോയാൽ തന്നെ കടലിനോട് തൊട്ടിട്ടുള്ള ഒരു ഫോർട്ടാണ് ഇപ്പം ക ക കടലും ഫോർട്ടും ഫ ഫോ ഫോർട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയാൽ കടലാണ് അപ്പോൾ അവിടെ കല്ലിൽ ഇരുന്ന് കടലിൻ്റെ ഭംഗിയൊക്കെ കാണാനും നല്ല രസമാണ് ബേക്കൽ ഫോർട്ടും ബേക്കൽ ഫോർട്ട് പോകുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിക്കര ബീച്ചും അപ്പോൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് പള്ളിക്കര ബീച്ചിലേക്ക് നടന്ന് വരാം പറ്റും പക്ഷേ അത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വണ്ടി യൂസ് ചെയ്ത് ബേക്കൽ ഫോർട്ട് പോയി തിരിച്ച് വരും പള്ളിക്കര പോയി ബീച്ചിൽ പോയി അവിടെയൊക്കെ കറങ്ങി ആ ഈവെനിംഗ് ഒന്ന് സന്തോഷത്തോടെ ചിലവഴിച്ച് തിരിച്ച് വരാറാണ് പതിവ്